ഞാൻ നല്ല ചിത്രങ്ങൾ പകർത്താനായി പോകുന്ന സ്ഥലമെന്നു പറയുന്നത് ചെറിയ ജലാശയങ്ങളുടെ അടുത്ത് ചെറിയ പാറക്കെട്ടുകൾ പുൽമേടുകൾ മലഞ്ചെരുവുകൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എൻ്റെ മനസ്സിനെ ആകർഷിക്കുന്ന നല്ല ചിത്രങ്ങൾ പകർത്താനായിട്ട് ഉപയോഗിക്കുന്നത് അതുകൂടാതെതന്നെ ചില സമയങ്ങളിൽ പഴയകാല നിർമ്മിതികൾ പഴയ ക്ഷേത്രങ്ങൾ പള്ളികൾ കോട്ടകൾ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെതന്നെ കടൽ കടൽത്തീരം തിരമാലകൾ ഇതൊക്കെത്തന്നെ നല്ലവണ്ണം ആകർഷിക്കാറുണ്ട് നല്ല പച്ചപ്പാർന്ന പുൽമേടുകൾ കൃഷിസ്ഥലങ്ങൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം എല്ലാമാണ് എങ്കിലും വെള്ളവും വെള്ളവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളെടുക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നിർണ്ണായകമായ ചില സന്ദർഭങ്ങളിൽ നല്ല ഫോട്ടോ എടുക്കണമെന്നു വിചാരിച്ച് ആ പോവുമ്പം അതിന് ഒരു ഒന്നാം സ്ഥാനം കൊടുക്കാറുണ്ട് അതുപോലെതന്നെ കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ നല്ല കൃഷിത്തോട്ടങ്ങളുടെ സൈഡിലൊക്കെ നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് നെൽവയലുകൾ തേയിലത്തോട്ടങ്ങൾ കാപ്പിത്തോട്ടങ്ങൾ അതുപോലെതന്നെ ആ മുന്തിരി വിളഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ മനസ്സിനെ നല്ലവണം ആകർഷിക്കാറുണ്ട് പ്രകൃതി രമണീയമായ കാര്യങ്ങളും അത് എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ അതേപോലെ തന്നെയാണ് എനിക്കും എല്ലാം വളരെ സന്തോഷം നൽകുന്ന സ്ഥലങ്ങളാണ് നല്ല ചിത്രങ്ങളെടുക്കാനായിട്ട് ഇങ്ങനെയുള്ള ലൊക്കേഷനുകളിലേക്ക് പോകാറുണ്ട് പൂർവ്വികരുടെ നല്ല നിർമ്മിതികൾ അതു കണ്ട് അതിൻ്റെ ആ വിസ്മയം കൊണ്ട് അഭിമാനം കൊള്ളാറുണ്ട് ആ നല്ല സ്തംഭങ്ങളുടെയൊക്കെ കീഴിൽ നിന്നു ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അതു നല്ല മുഹൂർത്തങ്ങളായി നല്ല ചിത്രങ്ങളായി ഓർമ്മകളിലും ആൽബങ്ങളിലൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട് ഇതൊക്കെയാണ് നല്ല ചിത്രങ്ങൾ പകർത്താനായി ഞാൻ പോകുന്ന സ്ഥലങ്ങൾ